ഞങ്ങളുടെ പ്രദേശം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രദേശം വയനാട് ആണ് വയനാട്ടിൽ എനിക്ക് അതായത് ഞാനറിഞ്ഞതിൽ വച്ചിട്ട് ഏറ്റവും വലിയൊരു പ്രശ്നം പിന്നെ അതായത് വൻ നാശം വരുത്തിയ ചരിത്രപരമായ ഏതെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളിവിടെ കല്പറ്റ മുട്ടിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട് സ്ഥലം ഉണ്ട് അപ്പോൾ അവിടെനിന്ന് വച്ചിട്ടുണ്ടങ്കിൽ ഈ കോറി അതായത് ഈ കല്ലുപൊട്ടിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അതായത് കണ്ടിന്യൂസ് ആയിട്ട് കല്ലുപൊട്ടിച്ച് പൊട്ടിച്ച് ആ ഒരു ഇതായിരുന്നു അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷത്തിനുമുന്നേ ആണ് പിന്നെയിത് സംഭവിച്ചത് അതായത് ഉരുൾ പൊട്ടലുണ്ടായി അതായത് അനധികൃതമായിട്ട് കല്ലെടുത്ത് കല്ലെടുത്ത് കല്ലെടുത്ത് അതായത് ഒരേരിയ മുഴുവൻ പോയി ആ പ്രളയത്തിന്റെ സമയത്താണിത് സംഭവിച്ചത് അവിടെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നു ആ കുടുംബങ്ങളിലുള്ള കുറേ പേര് മരിച്ചു അതൊരു എനിക്ക് വലിയൊരു വൻ ദുരന്തമായിട്ടും എനിക്ക് ഞാൻ ആലോചിക്കുന്നതിൽ ഏറ്റവും എനിക്ക് വിഷമം ഇതായിട്ടുള്ള ഒരു സംഭവമാണ് അത് ദുരന്തങ്ങൾ അത് അതാണ് ഞാൻ എനിക്ക് എനിക്ക് അറിയാവുന്നതും അതായത് ഞാൻ കണ്ടിട്ടുള്ളതും വച്ചിട്ട് ഏറ്റവും വലിയ ദുരന്തമായിട്ട് എനിക്ക് തോന്നിയത് അതാണ്